ഇത് ഷിഹാബ് അല്ലേ മൊബൈൽ ഷോപ്പ് എല്ലാം നടത്തുന്ന ആ ഇത് എൻ്റെ ബാറ്ററി കംപ്ലയിൻറ് ആയിനല്ലോ അത് മാറ്റിത്തരാൻ കഴിയുമോ ആ മൊബൈലിൻ്റെ ബാറ്ററി ഇത് ഐ ഫോൺ ആപ്പിളിൻ്റെ ഇത് കുറച്ച് പഴയത് സെവ് സെവൻ പ്ലസ് എനിക്ക് അർജൻറ് വേണമായിന് അല്ല അതിൽ നല്ലതുതന്നെ എടുത്തോ ഒറിജിനൽ തന്നെയാണ് മാത്രമല്ല റേറ്റ് എല്ലാം എങ്ങനെയാണ് വരുന്നത് നാലായിരമോ ഓക്കെ മാത്രം കുറച്ച് അല്ലേ ആ ഇത് ആകെ കൂട്ടിയിട്ടാണോ റിപ്പയർ എല്ലാം കൂട്ടിയിട്ടാണോ നിങ്ങൾ ന് ആ നിങ്ങൾ ചെയ്തുതരുന്നതല്ലേ അതെല്ലാം ഉണ്ടല്ലേ

അപ്പോൾ ഞാൻ നാളെ വരട്ടേ അത് അപ്പോൾ തന്നെ സെറ്റ് ആക്കി തരുമല്ലോ എനിക്ക് അപ്പോൾ അപ്പം തന്നെ വേണം അർജൻറ് ആ ഒരു മിനിറ്റ് പ്രശ്നം ഇല്ല ഒരു മിനിറ്റ് വെയിറ്റ് ആക്കാം ആ സോറി സോറി ഒരു മണിക്കൂർ അപ്പോൾ റേറ്റ് മൂവായിരത്തഞ്ഞൂറ് തന്നാൽ മതിയോ എന്നും ഓ ഇത് കുറച്ച് പഴയ ബാറ്ററി ഇതല്ലേ പഴയ മോഡൽ ബാറ്ററി അല്ലേ കുറച്ച് പഴയ മോഡലിൻ്റെ ബാറ്ററി അല്ലേ സെവൻ പ്ലസ് അല്ലേ അത് സാരമില്ല മൂവായിരത്തെഴുന്നൂറല്ലേ ങ്ങ നാളെ വരാം ഓക്കെ ഓക്കെ ആ അതൊരു ഞാൻ പത്ത് മണിക്ക് വരും രാവിലെ ആ പത്ത് മണിക്ക് ഓക്കെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് അടുത്തല്ലേ ആ ഓക്കെ ഓ